പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും സ്ത്രീ ശാക്തീകരണവും ശക്തിപ്പെടുത്തുന്നതും നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളെ പഡാവോ വനിതാ സംവരണം ഇന്ദിരാഗാന്ധി സിംഗിൾ ചൈൽഡ് കോളർഷിപ്നെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പങ്ക് വെക്കാനും പെൺകുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പെൺകുട്ടികൾക്ക് സുരക്ഷ ഉണ്ടെന്ന് ഗവൺമെൻറ്റ് പറയുന്നു ആ ഗവൺമെൻറ്റിൻറ്റെ സുരക്ഷാ പദ്ധതി നമുക്ക് ഒന്നും ഉറപ്പുള്ള ഉറപ്പുള്ള രീതിയിലല്ല ഈ ശക്തിപ്പെടുത്താൻ കേന്ദ്രമായാലും സംസ്ഥാന സർക്കാരായാലും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ പിന്നോട്ട് തന്നെയാണ് ഈ പിന്നോട്ട് പോകുന്ന ഈ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മക്കളെ നമുക്ക് പുറത്തോട്ട് വിടാൻ തന്നെ പേടിയാണ് ഇപ്പഴ്ത്തെ ഇത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഈ പെൺകുട്ടികൾ കോളേജിൽ പോകുന്നു സ്കൂളിൽ പോകുന്നു എന്നൊക്കെപ്പറഞ്ഞ് വീട്ടിൽനിന്ന് മാതാപിതാക്കളുടെ അടുത്ത് പറഞ്ഞ് ഇറങ്ങുന്നു അവർ എവിടെ ഒക്കെ പോകുന്നു എന്ത് ചെയ്യുന്നു സ്കൂളിൽ പോകുന്നുണ്ടോ ഇതൊക്കെ ഇപ്പം ഭയങ്കരമായുള്ള ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇത് ഗവൺമെൻറ്റ് സംബന്ധമായിട്ടും അതിൽ വേണ്ട ശക്തിപ്പെടുത്താനും ഇത് അത് സ്കൂൾ സംബന്ധമായി സ്കൂളിൽ വന്നില്ലെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ചറിയിക്കാനുള്ള സംവിധാനങ്ങളും അങ്ങനെയുള്ള പല നല്ല സംവിധാനങ്ങളും ഇതിന് വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഈ പെൺകുഞ്ഞുങ്ങൾ രാവിലെ വീട്ടിൽനിന്ന് ഇറങ്ങുന്നു ഇവർ എവിടെപ്പോകുന്നു അവർ അവരുടെ ബോയ്സ് ഫ്രണ്ടുമായിട്ട് കറങ്ങുന്നു സിനിമാശാലകളിൽ കറങ്ങി നടക്കുന്നു ഐസ് ക്രീം പാർല്കളിൽ കറങ്ങി നടക്കുന്നു ഇങ്ങനെ ഉള്ള ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ പേടി വരികയാണ് ഈ പേടി വരുമ്പോൾ നമുക്ക് നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ഇല്ലെ നമ്മളെ കേരളം അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള നമുക്കൊരു ഇതാണ് പിന്നെ അത് അതുപോലെ ഇന്ദിരാഗാന്ധി സിംഗിൾ ചൈൽഡ് സ്കോളർഷിപ്പ്നെക്കുറിച്ച് വിവരങ്ങൾ അങ്ങനെ എനിക്ക് പങ്ക് വെക്കാൻ അതിന് മാത്രം ഉള്ള ഇത് എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല അത് കാരണം അതിനെപ്പറ്റിയൊന്നും പറയാൻ എനിക്ക് ഒന്നുമില്ല പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റ് സർക്കാരുകൾ കേന്ദ്ര ഗവൺമെൻറ്റ് കേരളാ സർക്കാര്കളാണ് അതിന് വേണ്ട മുൻകൈകൾ എടുത്ത് അതിന് വേണ്ട ക്ലിയറൻസ് ചെയ്യുകയും വിദ്യാലയങ്ങളിൽ കുട്ടികൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിൻറ്റെ കാരണം അന്വേഷിക്കുകയും അതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമായി നമ്മുടെ അധ്യാപകരാണത് കടമ ചെയ്യേണ്ടത് രക്ഷിതാക്കൾ അവിടെക്കൊണ്ട് ചേർത്ത് എല്ലാകാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടും കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ വന്നില്ലെങ്കിൽ എന്താണ് കാരണം എന്നുള്ളത് അന്വേഷിക്കുകയും അതിന് വേണ്ട മുൻഘടനകൾ മുൻകൈകളും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ അധികൃതർ അതിന് വേണ്ട ഇത് ചെയ്യണം അല്ലെങ്കിൽ പി ടി എ പോലുള്ള ഓരോ സംഘടനക്കാർ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കണം ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റിയൊരു പറയാനുള്ള ഒരു കാര്യങ്ങൾ അതാണ് നമുക്ക് മുന്നോട്ടുള്ള സ്ത്രീശക്തിക്ക് വേണ്ട പുനർകാര്യങ്ങളെന്നും ഞാൻ പറയുന്നു